ഞങ്ങളുടെ ഈ നാട്ടിൽ പ്രധാനമായും കൃഷിയും കൃഷിയും അതുപോലെ തെങ്ങും രണ്ട് കൃഷി നല്ല ഭംഗിയായി നടക്കുന്ന നാടാണ് അത് ഞങ്ങൾ ആദ്യമേ നെല്ലിൻ്റെ നെല്ല് കൃഷി ചെയ്യാൻ തുടങ്ങുമ്പോൾ ട്രാക്ടർ അല്ലെങ്കിൽ ട്രില്ലർ ഇറങ്ങി അത് ഉഴുതുമറിച്ച് അതിനു ശേഷം അത് ആ കൺ പാടം വൃത്തിയാക്കി വിതയ്ക്കുന്നു വിതച്ചതിനു ശേഷം വളമിട്ട് നല്ല വിളവ് കിട്ടുന്നു നൂ തൊണ്ണൂറും തൊ നൂറ്റി ഇരുപതും ദിവസമാകുമ്പോൾ അത് കൊയ്ത്തിന് പാകമായി ഇപ്പോൾ മിഷൻ ഒക്കെ ഉള്ളതുകൊണ്ട് വന്നു അത് കൊയ്ത്ത് കൊയ്തെടുത്ത് അത് പിന്നെ ഉൽപ്പാദിപ്പിക്കുന്നു അതുപോലെ തന്നെ ഞങ്ങളുടെ നാട്ടിലെന്നു പറയുന്നത് പ്രധാനമായും തെങ്ങ് തെങ്ങ് പ്രധാനമായും ഉള്ളൊരു നാട്ടിലാണ് ഞങ്ങൾ ആ തെങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളത് കിളച്ചു വർഷം തോറും കിളച്ചു കൂട്ടും പിന്നെ ഏതാണ്ട് തുലാവർഷത്തോടനുബന്ധിച്ച് അത് പാ ഇത് കിളച്ച് വളമിട്ട് എല്ലാ വർഷവും ചെയ്യാറുണ്ട് അപ്പോൾ അതിൽ നിന്നും ഞങ്ങൾക്ക് സാമാന്യമായ വിളവ് ഞങ്ങൾക്കത് നേടിയെടുക്കാൻ സം പറ്റുന്നുണ്ട് അത് പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ കൃഷിയിടങ്ങൾ കാണാനും മറ്റുമായി വിനോദസഞ്ചാരികൾ ധാരാളം ഞങ്ങളുടെ നാട്ടിൽ വരുന്നു അവർക്ക് ഇതെല്ലാം കണ്ടു വളരെ സന്തോഷമുണ്ട് പിന്നെ സഞ്ചാരികൾ വരുന്നുണ്ട് പിന്നെ നെൽകൃഷി എന്നു പറയുന്നതാണ് ഇവിടുത്തെ പ്രധാന കൃഷി അതാണ് ഇവിടത്തെ എല്ലാവരുടെയും ജീവിതമാർഗം മിക്ക ആൾക്കാരുടെയും ജീവിതമാർഗം ഈ കൃഷി തന്നെയാണ് ആ കൃഷി നല്ല രീതിയിൽ പിന്നെ വെള്ളപ്പൊക്കം ഇപ്പോൾ ഉള്ള ഉള്ളതുകൊണ്ട് ഒത്തിരി നാശങ്ങളൊക്കെ നഷ്ടങ്ങളൊക്കെ വരാറുണ്ട് എങ്കിലും അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് ആ കൃഷിയെ വീണ്ടും വീണ്ടും ഞങ്ങൾ ആ കൃഷിയിൽ കൂടുതൽ ജാഗ്രത കാണിച്ചുകൊണ്ട് ആ കൃഷി നെൽകൃഷി അതുപോലെ തന്നെ തെങ്ങ് എല്ലാം ഞങ്ങൾ കൂടുതൽ കൂടുതൽ ആദായം കൂടുതൽ കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്നുണ്ട് അതിനു വേണ്ടി ഞങ്ങൾ ഒത്തിരി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിൽ ഞങ്ങൾക്ക് കിട്ടാറുണ്ട് പിന്നെ അതിനുള്ള വളങ്ങളൊക്കെയാണെങ്കിലും ഞങ്ങൾക്ക് കിട്ടും അതിനൊക്കെ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് ഞങ്ങൾ അതിൻ്റെ രണ്ട് കാര്യമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ സഞ്ചാരികൾ ഒത്തിരി സന്തോഷത്തോടെയാണ് ഞങ്ങളുടെ ഈ നാട് കാണാനും അവർ വള്ളങ്ങൾ വള്ളങ്ങളിൽ സഞ്ചരിച്ച് അവർക്ക് ഈ പിന്നെ സഞ്ചരിച്ച് പോകാനും അവർക്ക് നാ ദൈവത്തിൻ്റെ നാടെന്ന് പറയുന്ന നമ്മുടെ ഈ സ്ഥലത്തേക്ക് വന്ന് കാണാനൊക്കെ വളരെ സന്തോഷമുണ്ട് അവർ ഒത്തിരി സന്തോഷത്തോടെ വന്ന് ഈ കൃഷി ഇടങ്ങളൊക്കെ കാണുകയും ചിലരൊക്കെയെങ്കിലും വന്ന് ആ പാടങ്ങളിൽ ഇറങ്ങി അവർ അവരുടെ സന്തോഷം പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് ഒത്തിരി ഒത്തിരി സന്തോഷം അവർക്കുണ്ട് അങ്ങനെയാണ് ഞങ്ങളുടെ കൃഷിയെക്കുറിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത് കൃഷി തീർച്ചയായും ഞങ്ങളുടെ ജീവിത മാർഗവുമാണ് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട് ആ കൃഷിയിടങ്ങളിൽ ഇറങ്ങാനും കൃഷികൾ കൃഷി ചെയ്യുവാനും ഞങ്ങൾക്ക് ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് പിന്നെ കൂടുതലായി ഞങ്ങൾ ഇതിനൊക്കെ ആശ്രയിച്ചാണ് ഞങ്ങളുടെ നാട്ടിലെ ഞങ്ങൾ ജീവിക്കുന്നത് ഞങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ ഇതിലൂടെ ചെയ്യാനും ഒക്കെ സാധിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഒത്തിരി നേട്ടങ്ങൾ ഇതിലൂടെ ചെയ്യാൻ പറ്റുന്നുണ്ട് സന്തോഷത്തോടെ ഞങ്ങളത് ചെയ്യുന്നു